ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ പുരോഗമനം വളരെ കുറവാണ് ഇനിയും ഒരുപാട് മെച്ച മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമനങ്ങൾ വരാനുണ്ട് ഒരുപാട് നല്ല പുതിയ ടെക്നോളജീസ് വരാനുണ്ട് ഇന്ത്യയിൽ പക്ഷേ നിലവിൽ നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുറച്ചു കൂടി പുരോഗമനം ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ പുരോഗമനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യയുടെ ആരോഗ്യസ്ഥിതിയെ മാറ്റിമറിക്കും അതുപോലെത്തന്നെ മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ ജനങ്ങൾ നേരിടുന്ന ആരോഗ്യ സംവിധാനത്തിലുള്ള അതായത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ക്ലിനിക്ക് എല്ലാവിടെയും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാ പണം പണച്ചിലവാണ് ആരോഗ്യസ്ഥിതിയിൽ വളരെയേറെ വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും ചികിത്സ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽസ് അവിടെയാണ് മിക്ക പ്രശ്നങ്ങളും വരുന്നത് ശുചിത്വമില്ലായ്മ അതുപോലെ നീണ്ട ക്യൂകൾ നീണ്ട ക്യൂകളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിലെ കുറെ കുറെ നേരം നമ്മൾ ക്യു നിൽക്കേണ്ടി വരുന്നതായിട്ട് വരും രോഗികൾ ഈ സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പലനേരങ്ങളിലും അവിടെ നിൽക്കേണ്ടതായിട്ട് വരും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതുപോലെത്തന്നെ ഗവൺമെന്റ് ആശുപത്രിയിലെ ശുചിത്വം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്ത്യയിലെ മിക്ക ഗവൺമെൻറ് ആശുപത്രികളിലും അവരുടെ ശുചിത്വം ആശുപത്രികളിൽ ഉള്ള ഒരു ശുചിത്വം കുറവാണെന്ന് തന്നെ പറയാം മോശമാണ് ചില ആശുപത്രികളില് എല്ലാം വളരെ മോശമാണ് പക്ഷേ സേവനം ഒട്ടുമിക്കതും കുഴപ്പമില്ലാതെ നല്ല രീതിയില് നടക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ശുശ്രൂഷ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഹോസ്പിറ്റൽ ചുറ്റുപാടും ഹോസ്പിറ്റലിലെ പല ഭാഗത്തുമുള്ള ശുചിത്വം വളരെ കുറവാണ് പിന്നെ ചിലവ് കാര്യങ്ങളും കുറവ് തന്നെയാണ് ഇന്ത്യൻ ആരോഗ്യ സംവിധാനത്തിൽ ഉള്ളതും ഗവൺമെൻറ് ഹോസ്പിറ്റാലിറ്റീസിയിൽ വളരെ ചിലവ് കുറവ് തന്നെയാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും മെച്ചപ്പെടാനുണ്ട് ഇന്ത്യൻ ആരോഗ്യ സംവിധാനം വളരെയേറെ മെച്ചപ്പെടാനുണ്ട്